ആ അതെ പറഞ്ഞോളൂ മേഡം ആ ഓക്കെ ആ ഇ എം ഐ അപ്പോൾ മാഡത്തിൻ്റെ കൈയിലെന്തെങ്കിലും ഇ എം ഐ കാർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ബജാജിൻ്റെ ഫിനാൻസ് കാർഡ് ഇ എം ഐ കാർഡ് ഇല്ല ആ ഓക്കെ മാഡത്തിന് എ ടി എം കാർഡ് ഉണ്ടോ ആ ഓക്കെ നമുക്ക് എ ടി എം കാർഡ് വെച്ച് ചെയ്യാം മേഡം ആ അപ്പോൾ മാഡം ഏത് ഇതിലാണ് നോക്കുന്നത് ഏതെങ്കിലും കമ്പനി നോക്കുന്നുണ്ടോ അത്രേയുള്ളു അപ്പം മേഡം നമുക്ക് ഇ എം ഐ ഓപ്ഷൻ ആണെങ്കിൽ ഇപ്പോൾ സാംസങ് വിവോ ഓപ്പോ അങ്ങനത്തെ ഫോണുകൾക്കൊക്കെ ആണ് നമ്മൾ സാധാരണ ഇ എം ഐ കൊടുക്കുന്നത് അപ്പം മാഡം ഇതിൽ ഏതെങ്കിലും ഫോൺ ചൂസ് ചെയ്യുന്നുണ്ടോ റേറ്റ് ഇപ്പം മേഡത്തിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണ് ഓക്കെ മേഡം ഓക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു തരാൻ കഴിയും അപ്പോൾ മേഡം ഇ എം ഐ ഇട്ടിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തരാൻ കഴിയും എ ടി എം കാർഡ് അങ്ങനെ എന്തെങ്കിലും പ്രൂഫും മേഡത്തിൻ്റെ ആധാർ കാർഡും മാത്രം മതിയാവും നമുക്ക് സീറോ കോസ്റ്റ് ഇ എം ഐയും ഉണ്ട് ഡൗൺ പേയ്മെന്റ് ചെയ്തിട്ട് ചെയ്യുന്നതും ഉണ്ട് മേഡം മേഡം എങ്ങനെയാണ് സീറോ കോസ്റ്റിലാണോ ചെയ്യുന്നത് ആ ഓക്കെ ഓക്കെ ആ മേഡം സ്ഥലം എവിടെയാണ് ആ ഓക്കെ നമുക്ക് മാനന്തവാടി മൈ ജിയിൽ വന്നാൽ മതി അപ്പോൾ നമുക്ക് ലിമിറ്റ് നോക്കിയിട്ട് ചെയ്യാം അതിപ്പോൾ നമുക്കൊരു ഫോർട്ടി ടു ഫിഫ്റ്റി കിലോമീറ്റർ ബേസിലാണ് നമ്മൾ ചെയ്തുകൊടുക്കുള്ളൂ ആണ് ഞായറാഴ്ച്ചയൊക്കെ നമുക്ക് ഓപ്പൺ ആണ് മേഡം വരുന്നത് ആ ഓക്കെ ഇറ്റ്സ് ഓക്കെ നമുക്കത് ചെയ്യാൻ പറ്റും മേഡം നമുക്ക് ഈവെനിംഗ് ഒരു എയിറ്റ് ഒ ക്ലോക്ക് വരെയൊക്കെ ഉണ്ടാവുള്ളൂ ആ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ശരി മേഡം